സ്ഥലം അതെ ഇത് അതെ അതെ അതെ ബ്രോക്കറാന്ന് ബ്രോക്കറ് അതെ ഇപ്പം സ്ഥലം എവിടെയാണ് ഇപ്പോഴത് എവിടെയാണത് എവിടെയാണത് കാഞ്ഞങ്ങാടാണോ അതെ ലൊക്കേഷൻ ലൊക്കേഷൻ റോഡ് സൈഡിൽ വരുന്ന സ്ഥലമോ അല്ലെങ്കിൽ റോഡ് മെയിൻ റോഡ് വരുന്നതാണോ അതെ മെയിൻ റോഡ് ഇത് സബ് റോഡായിട്ട് വരുന്നതാണോ മെയിൻ റോഡാണ് ഉള്ളിലോട്ട് പോകുവാനുണ്ടോ സ്ഥലത്തിന്റെ ഇപ്പോൾ ഇന്ന് പിരിവായിട്ടെന്തെങ്കിലും ഉണ്ടോ ബിൽഡിങ്ങുണ്ടോ എത്ര സെക്ടറിൽ ബിൽഡിംഗ് എത്ര സെക്ടറിൽ ഉള്ള ബിൽഡിങ്ങ് എന്ന് അഞ്ച് സെക്ടറുണ്ട് അഞ്ച് സെക്ടറിൽ ബിൽഡിങ്ങ് അല്ലേ അപ്പോൾ അഞ്ച് സെക്ടറിൽ ബിൽഡിംഗ് സ്ഥലം എത്രയുണ്ട് എത്ര സെന്റുണ്ട് അയിമ്പത് സെന്റും അഞ്ച് അഞ്ച് സെക്ടറിൽ ബിൽഡിങ്ങും അതായത് ഇത് നമ്മളെ കാഞ്ഞങ്ങാട് തെങ്ങും വാഴക്കൃഷിയും അയിമ്പത് സെന്റിലുണ്ട് ആ അപ്പോൾ തെങ്ങും തെങ്ങും ബാഴക്കൃഷിയും ഈ അഞ്ച് സെക്ടറിൽ പീടികയും ഒരു തട്ടാണോ രണ്ട് തട്ടാണോ രണ്ട് തട്ടുണ്ടോ അപ്പോൾ അഞ്ചും അഞ്ചും പത്ത് സെക്ടറായി അല്ലേ ആ അതു ശരി അഞ്ച് സെക്ടർ താഴെയല്ലേ അഞ്ച് സെക്ടർ മുകളിലും ഉണ്ട് ആ അതെ ശരി അത് അതായത് നമ്മളെ മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്ന് എൻ എച്ചിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം അല്ലേ അപ്പം നിങ്ങളത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല വേറെ എക്സ്ചേഞ്ച് സ്ഥലം വേറെ എക്സ്ചേഞ്ച് ഓഫറിന് നിൽക്കുന്നുണ്ടോ അല്ല അതെ പൈസക്കല്ല നിങ്ങൾക്ക് വെണമെങ്കിൽ നമ്മളെടുത്തൊരു ഓഫറുണ്ട് നമ്മളടുത്ത് വേറെ സ്ഥലമുണ്ട് കൃഷിയായ സ്ഥലവും മറ്റു ബിൽഡിങ്ങിൻ്റെ സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ വീടുള്ള സ്ഥലം ഉണ്ട് വീടും മറ്റു ചുറ്റുപാടും ഉള്ള സ്ഥലമുണ്ട് അപ്പം അതിനോട് ഓഫറായിട്ട് അത് ഓഫർ ആക്കുന്നുണ്ടെങ്കിലേ അതിനോട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്ഥലത്തിനൊരു വില കാണാം നിങ്ങൾ അവിടെ വില എങ്ങനെ വില എത്രയുണ്ടിപ്പോൾ മൂന്ന് ആ മൂന്ന് ലക്ഷം വരെ ഉണ്ട് അപ്പം നമ്മളൊരു വീടുണ്ട് നമ്മളൊരത് നാൽപത് ലക്ഷം അയിമ്പത് ലക്ഷം ഉറുപ്പിക കൊടുക്കുന്ന ഒര് വീടുണ്ട് നല്ല ഒരു അറുപത് സെന്റ് സ്ഥലവും ഒരു വീടും സാധാരണ നല്ല വീട് കാശിനാവശ്യം ആണെങ്കിൽ കാശിനാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വിളിക്കുക വിളിച്ച് ആയിട്ട് നിങ്ങളെത്ര വില പറയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൈറ്റ് വന്നു നോക്കട്ടെ ആദ്യം നോക്കിയിട്ട് ആയിട്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമല്ലോ സൈറ്റ് എതാണ് നോക്കുന്നത് നിങ്ങൾ വിളിച്ചാൽ മതി ഞങ്ങൾ ആ സ്ഥലമൊന്ന് നോക്കിയിട്ട് ആയിട്ട് അവർക്കിഷ്ടപ്പെടേണ്ടേ പാർട്ടിക്ക് പാർട്ടിക്ക് ആയി ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് പറയാം ഏത് ദിവസം വരേണ്ടതെന്ന് ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഓക്കെ